അവിടെ ഞങ്ങള് പോകും അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയുണ്ട് ഉച്ചനമസ്ക്കാരമുണ്ട് പിന്നെ പുതുപ്പള്ളി പള്ളി ഉണ്ട് അത് പിന്നെ ഗീവർഗീസ് സാദയുടെ നാമത്തിലുള്ളതാണ് ആ പള്ളിയില് ഞങ്ങള് മിക്കവാറും പോകാറുണ്ട് ഗീവർഗീസ് സാദയുടെ നാമത്തിൽ നമ്മളെന്തെങ്കിലും മധ്യസ്ഥത വച്ചപേക്ഷിച്ചാല് നമ്മൾക്ക് ആ കാര്യങ്ങളെല്ലാം സാധിച്ച് കിട്ടും പിന്നെ മണർകാട് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളി ഉണ്ട് അവിടെ വളരെയധികം ഫലപ്രദമായ രീതിയിലെ കാര്യങ്ങളുണ്ട് ഞാനെൻ്റെ മകന് കുഞ്ഞ് ഉണ്ടാകാതെ എട്ട് വർഷം ഞങ്ങള് കാത്തിരുന്നു മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞങ്ങള് കണ്ണുനീർ അർപ്പിച്ച് പ്രാർഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു അങ്ങനെ ഞങ്ങള് എല്ലാ അടുത്തുള്ള ആരാധനാലയങ്ങളിലെല്ലാം പോകുന്നുണ്ട് ഞങ്ങളുടെ പള്ളികളില് ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞാല് എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് കുർബാനയുണ്ട് നമസ്ക്കാരം തുടങ്ങി കുർബാനയായി പത്തര പതിനൊന്ന് മണിയോട് കൂടിയതവസാനിക്കും പിന്നെ വെള്ളിയാഴ്ച സ്ത്രീസമാജം ഉണ്ട് അത് രാവിലെ പത്തരയ്ക്ക് തുടങ്ങി പന്ത്രണ്ടര വരെ ഉണ്ട് അത് ഞങ്ങളുടെ അച്ഛൻ വന്നതെല്ലാം ലീഡ് ചെയ്ത് ക്ലാസ്സെടുത്ത് പ്രാർഥന വേദപുസ്തകം വായന പാട്ട് പ്രാർത്ഥന ഇതെല്ലം കഴിഞ്ഞച്ചൻ ക്ലാസ്സെടുക്കും ഉച്ചനമസ്ക്കാരത്തോട് കൂടിയത് നമുക്ക് തീരും ശനിയാഴ്ച്ച ഞങ്ങളുടെ വീടുകളിലാണ് പ്രാർത്ഥന നടക്കുന്നത് അത് സ്ത്രീകള് പുരുഷന്മാര് കുഞ്ഞുങ്ങള് എല്ലാവരും അടങ്ങുന്നതാണ് അങ്ങനെ ശനിയാഴ്ച വീടുകളിലെ പ്രാർത്ഥന യോഗമുണ്ട് അങ്ങനെ ഞായറാഴ്ച ആരാധന അങ്ങനെ ദിവസം ഒരാഴ്ചെ മൂന്ന് ദിവസം നമ്മുടെ പള്ളി സംബന്ധമായ ആരാധന സംബന്ധമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മള് ഇടക്ക് പരുമല പള്ളിയിലെ പെരുനാള് വരുമ്പോൾ പരുമല തിരുമേനിയോടുള്ള മധ്യസ്ഥത അപേക്ഷിച്ച് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പദയാത്രയായിട്ട് പോകുകയും അവിടെ പിന്നെ നേർച്ച കാഴ്ചകൾ വെച്ച് പോരുകയും ഞങ്ങളനുഗ്രഹം പ്രാപിച്ച് പോരുകയും ചെയ്യും മണർക്കാട് പള്ളിയിലെട്ട് നോയമ്പ് എട്ട് ദിവസവും അവിടുത്തെ പ്രധാനകാര്യങ്ങള് കർമ്മങ്ങളാണ് എട്ട് അത് സെപ്റ്റംബറ് ഒന്നാം തീയതി തുടങ്ങി എട്ടാം തീയതി അവസാനിക്കുന്നു എട്ട് നോയമ്പ് പിന്നെ മെയ് ആറ് ഏഴുവാണ് പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാള് ആ സമയങ്ങളൊക്കെ ഞങ്ങളവിടെ പോയി അതിനെല്ലാം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോരുന്നു